എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഏട്ടൻ ഞാൻ നാല് പേരുള്ള ഒരു ചെറിയ കുടുംബമാണ് നമ്മളെ കുംടുംബത്തിലെ സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പോകുന്നു അച്ഛന് ഗവർമെന്റ് ജോലിയാണ് ക്ലർക്കാണ് അമ്മ ടീച്ചറാണ് ഏട്ടൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഇപ്പോൾ കോളേജിൽ ആണെങ്കിലും വീടിൻ്റെ അവിടെ ആണെങ്കിലും പിന്നെ കസിൻസ് ആയിട്ടും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് അത് സ്കൂളിലെ ഇപ്പോൾ പ്ലസ് ടു ഉള്ള ഫ്രണ്ട്സ് വേറെ ടെൻത്തിലെ ഫ്രണ്ട്സ് വേറെ അപ്പോൾ കോളേജ് ഫ്രണ്ട്സ് വേറെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരേയും മീറ്റ് ചെയ്യാറുണ്ട് ഇപ്പോഴും എല്ലാവരും ആയിട്ട് കോൺടാക്ട് വെക്കാറുണ്ട് നമ്മൾ നല്ല ഒരു ഒരു പിടി നല്ല ഒരു നല്ല സുഹൃത്തുക്കൾ ഉണ്ട് ബെസ്ഡ് ഫ്രണ്ട്സായിട്ട് എപ്പോഴും അവർ കോൺടാക്ട് ചെയ്യും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കില് അവരോട് സംസാരിക്കും കോൺടാക്ട് ചെയ്ത് കൊണ്ടിരിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ കോളേജിൽ ആണെങ്കിലും ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരും നമ്മൾ ഇപ്പോൾ ഇവര് ഇപ്പോൾ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യവും അവർക്ക് അറിയും ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യവും അവര് നമ്മളോട് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് ബാക്കി ഉള്ളവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഉള്ള ഇതേ ഉളളൂ പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സുകൾ എപ്പോഴും ഡെയിലി കോൺടാക്ട് ചെയ്യുന്ന ഫ്രണ്ട്സുകളുണ്ട് കോളേജിൽ ഇപ്പോൾ ഫ്രണ്ട്സുകൾ ഇപ്പോൾ അത് പെൺകുട്ടികളും സുഹൃത്തുക്കളായിട്ടുണ്ട് ആൺകുട്ടികളും സുഹൃത്തുക്കളായിട്ട് ഉണ്ട് എല്ലാവരും കോൺടാക്ട് ചെയ്യും സംസാരിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് സംസാരിക്കുകയും ചെയ്യും അതുപോലെ വീട്ടിൽ ഫങ്ക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കും അവർ വരും വീട്ടുകാർക്കും ഫ്രണ്ട്സിനെ ഒക്കെ അറിയാം അവരും വീട്ടിൽ ഒക്കെ വരുമ്പോൾ ഒക്കെ സംസാരിക്കാറുണ്ട് അങ്ങനെ